ഈ അടുത്ത കാലത്ത് ഞാന് ഒരു ശ്രദ്ധിക്കാനിടയുണ്ടായ ഒരു വാർത്ത എന്ന് വെച്ചാല് ഒരു ആംബുലൻസില് ഒരു രോഗിയെ ആയിട്ട് പോകുമ്പം മന്ത്രി മന്ത്രിയപ്പം സിഗ്നലില് ഇപ്പം ആംബുലൻസ് തടഞ്ഞു നിർത്തിയിട്ട് മന്ത്രീനോട് മന്ത്രീൻ്റെ വാഹനം ആദ്യം പോകാനും ആ ആംബുലൻസില് കിടക്കുന്നത് ഒരു രോഗിയാണ് അതത്രയും എമർജൻസി ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ആംബുലൻസില് കൊണ്ട് പോകുന്നത് വേറൊരു ഹോസ്പിറ്റലിലേക്ക് അപ്പം ജനങ്ങളുടെ സംരക്ഷണവും ജനങ്ങളുടെ ജീവനുമാണ് ആദ്യം വില കൊടുക്കേണ്ടത് ഇപ്പം മന്ത്രിക്ക് ആദ്യം ആംബുലൻസ് അവിടെ തടഞ്ഞു നിർത്താൻ ഒരധികാരവും ആർക്കുമില്ല ആംബുലൻസ് ഏതു ബ്ലോക്കിലും അകപ്പെട്ട് പോ പോകാനും പാടില്ലാത്തൊരു വണ്ടിയാണ് അതിൻ്റുള്ളിലൊരു ജീവനായി ആണുണ്ടായത് അത് രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പോകുന്നത് അപ്പം ഈ മന്ത്രീനെ മന്ത്രീൻ്റെ വാഹനം തട്ടിത്തെറിപ്പിച്ച് വാഹനം മറിയാനൊരു ഇടയുണ്ടായി ജനങ്ങളില് ഈ ആൾക്കാരെയൊക്കെ ജയിപ്പിച്ച് വിടുന്നത് ജനങ്ങളുടെ സംരക്ഷണത്തിനും ജനങ്ങളുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവര് ഇലക്ഷന് നിൽക്കുന്നതും ഇവര് പാർട്ടിയിലേക്ക് വരുന്നതും ഒന്നും